ഹലോ ടോണീസ് സ്പാ ആരാണ് വിളിക്കുന്നത്

ഓക്കേ മേഡം നമ്മുടെ മുടീടെ വ നീളം അനുസരിച്ചിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത് അപ്പം മേഡത്തിനൊത്തിരി ലെങ്ങ്തൊള്ള മുടിയാണോ ഷോട്ടാണോ ഓക്കെ അത് നമ്മൾ സ്റ്റാട്ടിംഗ് തുടങ്ങുന്നതൊരു ഫൈ ത്തൗസന്റ് റുപ്പീസാണെ ആ അപ്പം അതിലെ ഓ മസ്സാജിംഗ് കഴിഞ്ഞിട്ട് ഹെയര് കട്ട് വെല്ലോം ചെയ്യുന്നുണ്ടോ മേഡം ഓക്കെ ഓക്കെ ആ മേഡം ഇവിടെ നാ അപ്പോയിന്മെന്റ് എടുക്കാനായിട്ടാണോ വിളിച്ചത്

ആ നാളെ ഒരു നാളെ നമുക്ക് പത്ത് മണി തൊട്ട് ഷോപ്പ് ഓപ്പണാണ് അപ്പോൾ ഒരു പത്ത് മണി കഴിയുമ്പോഴത്തേക്ക് പത്ത് മണി കഴിയുമ്പോഴത്തേക്ക് പോര് ഓക്കെ മേഡം ഹെഡ് മസ്സാജും പിന്നെ ഡാന്ഡ്രഫിന്റെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ അതിന് ആയിരത്തഞ്ഞൂറ് രൂപ സ്റ്റാട്ടിംഗ് ആ ഓക്കെ ആ മേഡം എന്തായാലും വാ നമുക്ക് ഹെയറിന്റെ സ്ട്രെങ്ങ്തും ഒക്കെ അനുസരിച്ചിട്ട് വേണം നമ്മളതിന്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ പ്രധാനവായിട്ടും കെരാറ്റിന് ട്രീറ്റ്മെന്റ് ഡാന്ഡ്രഫിന്റെ ട്രീറ്റ്മെന്റെ പിന്നെ ഹെയര് കളറിങ്ങോണ്ട് അപ്പം മേഡത്തിന് ഹെയര് കളറ് ചെയ്യാന് താല്പര്യം ഉണ്ടോ മതിയല്ലേ ഓക്കെ ആ മേഡം ആ ഒരു ആഹ് സ്മൂത്തനിംഗ് ചെയ്യുന്നുണ്ട് ആ സ്മൂത്തനിംഗ് റേറ്റ് കൂടുതലാണ് ഒരു ത്രീ ത്തൗസന്റ് തൊട്ടേ ഉള്ളു നമുക്ക് സ്റ്റാട്ടിങ് ഓക്കെ അപ്പം എല്ലാം കൂടെ മേഡത്തിന് ഞാനൊരു എമൗണ്ടിലാക്കി തരാം മേഡം എന്തായാലും പോര് എന്തോ ആ അതെ അതെ അതെ ആ നാളെ ഒരു പത്ത് മണി ആവുമ്പോഴത്തേക്ക് പോര് കേട്ടോ ആ ആ ശരി ശരി ഓക്കെ താങ്ക് യൂ മേഡം